പാലക്കാട് ജില്ലയിലെ എന്തെക്കെയാണ് വിദ്യാഭ്യാസ വിദ്യാഭ്യാസ വളർച്ചകൾ എന്ന് ചോദിച്ച് പറഞ്ഞാൽ മൊത്തത്തിൽ എല്ലാവരുടെയും ഇപ്പോൾ സ്കൂൾ തൊട്ട് തന്നെ എല്ലാവർക്കും നല്ല വിദ്യാഭ്യാസം ആണ് കൊടുക്കുന്നത് അത് കഴിഞ്ഞാൽ ഒരു ഡിഗ്രി ഫീൽഡ് ആയിനൂന്ന് പറഞ്ഞാൽ ഞമക്ക് വേറെ എന്തെങ്കിലും ബാങ്ക് കോച്ചിങ്ങ് പോലെ ദേവികാ കോളേജുണ്ട് ദേവികാ പ്ലസ് പോയൻറ്റ് ഉണ്ട് എൻട്രൻസ് എൻട്രി ആപ്പ് ഉണ്ട് അങ്ങനെ കുറേ ഉണ്ട് പിന്നെ പി എസ് സീക്ക് പഠിക്കാൻ വേണ്ടി ടാലൻറ്റ് ഉണ്ട് പിന്നെ വന്നിട്ട് ദുർഗ്ഗ ഉണ്ട് പിന്നെ ശ്രേയാ കോളേജ് അങ്ങനെ കുറേ ഉണ്ട് പിന്നെ യൂണിവേഴ്സിറ്റികളായിട്ട് കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയെ ബെയ്സ് ചെയ്തിട്ട് പറയുകയാണ് എന്ന് പറഞ്ഞാൽ വിക്ടോറിയയിൽ അങ്ങനെ കുറേ ഫെസിലിറ്റികൾ ഉണ്ട് എന്താ ഡിഗ്രി കഴിഞ്ഞ് ഞമ്മൾ എന്ത് കോർസ് എടുക്കണം എന്നുള്ള എല്ലാറ്റിനും ഡിഗ്രി കഴിഞ്ഞൊരു ജോലി വേണമെങ്കിലും അതിന് ഞമ്മൾ ഈ കോഴ്സ് വെച്ചിട്ടൊക്കെ ഞമ്മക്ക് പഠിച്ച് അല്ലെങ്കിൽ ആ പ്ലസ് ടൂ കഴിഞ്ഞാൽ ഞമക്ക് നെറ്റ് എഴുതുക അങ്ങനെ എല്ലാ ഫെസിലിറ്റിയും പാലക്കാട് ജില്ലകളിലുണ്ട്